കോഴിക്കോട് ജില്ലയിലെ ഇപ്പോൾ പ്രധാന പ്രകൃതി വിഭവങ്ങളും പാരിസ്ഥിതിക വെല്ലുവിളികളും എന്തൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് അതായത് ജലം വനങ്ങൾ ധാതുക്കൾ അങ്ങനെയുള്ളത് ഒക്കെയാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടേൽ ഇതൊക്കെ നശിപ്പിക്ക് ഇപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ ഇതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുവാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് വെള്ളത്തില് കായൽ വെള്ളം ഒക്കെ ഫുൾ മാലിന്യങ്ങളാണ് ഇതൊക്കെ പ്യൂരിഫൈ ചെയ്തിട്ടാണ് നമ്മൾ കുടിക്കുന്നത് അപ്പോൾ നമ്മൾ തന്നെയാണ് ഈ മാലിന്യം ഈ മൽ മലിനീകരണം കാര്യങ്ങളൊക്കെ നടത്തുന്നതും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ ജല സ്രോതസുകള് എന്ന് വെച്ചട്ടുണ്ടെങ്കില് ഒരുപാട് ജല സ്രോതസുകള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ശുചത്വം ഒരിക്കലും ഇല്ല അതായത് ശുചിത്വം എന്ന് വെച്ചാൽ ശുചിത്വത്തോടെ നമ്മൾ ഇതാക്കുന്നില്ല മെയിൻ ആയിട്ട് എന്ന് വെച്ചാൽ ഫാക്ടറിയിലെ പുകകള് പിന്നെ നമ്മൾ നമ്മളിൽ ഉള്ള വേസ്റ്റുകൾ മുഴുവൻ നമ്മൾ കായലിൽ കായലിൽ ഒക്കെയാണ് നമ്മൾ കൊണ്ട് തള്ളുന്നത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് മുൻസിപ്പാലിറ്റികാരൊക്കെ വന്നിട്ട് എല്ലാം പ്രദേശമൊക്കെ വൃത്തിയാക്കുന്നുണ്ടെങ്കിലും പിന്നെ ചവറ്റു കുട്ടകൾ കാര്യങ്ങളൊക്കെ എടുത്ത് കൊണ്ട് പോകുന്നുണ്ടെങ്കിലും പക്ഷെ എങ്ങനെയാണെങ്കിലും പിന്നെ അവർ വൃത്തിയാക്കി കഴിയുമ്പോഴത്തേക്കും പിന്നെയും വൃത്തിഹീനമായിട്ടുള്ള ഒരു പിന്നെ അ അന്തരീക്ഷത്തിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നടന്ന് കൊണ്ടിരിക്കുന്നത്